ഹലോ ഹലോ ഇത് വിൻറേജ് ടൂറിസം അല്ലേ നമ്മൾ ബാഗ്ലൂരിൽ നിന്ന് വിളിക്കുവാണ് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഫാ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് കേരളത്തിലോട്ട് വരുകയാണ് എല്ലാ ഇടവും ഒന്ന് കാണാൻ ഒക്കെ ആയിട്ട് വെക്കേഷൻ അല്ലേ അപ്പോൾ അപ്പോൾ നി നിങ്ങൾ എങ്ങനെ ആണ് നിങ്ങളുടെ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ഫാമിലി നമ്മൾ ഒരു സെവൻ സെവൻ ഓ ട്രാവൽ മതി ട്രാവൽ മതി ട്രാവലർ അല്ല നമുക്ക് വലുതായിട്ട് അവിടുത്തെ നല്ല പ്ലേളെസുകളെ കുറിച്ചൊന്നും അറിയില്ല എന്നാലും നമ്മൾ ബീച്ചസ് പിന്നെ അവിടുത്തെ കോ കുറേ സംഭവം ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ നോക്കുന്നത് മൗണ്ടൻസ് മൗണ്ടൻസ് ഒക്കെ ഉണ്ടല്ലോ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് പിന്നെ ഇവിടെ പോവണം എന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ പൊന്മുടി പിന്നെ വയനാട് പോവണം

വേറെ അവിടെ പിന്നെ ഒരു അവിടെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉണ്ടല്ലോ ഒരു പേരറിയാൻ വയ്യ ഓ അവിടെ അവിടെ അവിടെ അവിടെ പോവണം പിന്നെ മ മറൈൻ വേൾഡ് ഉണ്ടല്ലോ മറൈൻ വേൾഡ് അവിടെ പോവണം പിന്നെ നിങ്ങൾ അവിടെ ഒരു ഫേമസ് പ്ലേസ് ഉണ്ടല്ലോ മറ്റേ ആ കുട്ടനാട് കുട്ടനാട് അവിടെ പോവണം അല്ല ഗൈഡ് വേണം ഗൈഡ് വേണം ഗൈഡ് വേണം പിന്നെ ഈ കുട്ടനാട് കുട്ടനാട് പോയിട്ട് നമുക്ക് ഹൗസ്ബോട്ട് സെറ്റപ്പ് ഒക്കെ വേണം കേട്ടോ അതൊക്കെ നിങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് തരുമോ ഓ ഫുഡ് നമുക്ക് നോൺ വെജ് തന്നെ വേണം കെട്ടോ

പിന്നെ ഫുൾ ഫുൾ ഇന്ത്യൻ ഫുഡ്സ് ആയിരിക്കണം കപ്പ കപ്പ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ കപ്പ മീൻ അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങളുടെ ഇന്ത്യൻ ഐറ്റംസ് ആ മീറ്റ് ഐറ്റംസ് നിങ്ങളുടെ അവിടെ ഫിഷ് അല്ലെങ്കിൽ കൂടുതൽ ഇത് അപ്പം താറാവോ താറാവ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ അത് അതൊക്കെ വേണം പിന്നെ സീ ഫുഡ്സ് പിന്നെ സീ ഫുഡ്സ് വേണം കേട്ടോ ഓക്കെ ഓക്കെ നാല് കുട്ടികൾ ഉണ്ടേ റൂം ഒരു രണ്ട് മൂന്ന് മൂന്ന് മൂന്ന് ഓ മതി മതി മതി ഓക്കെ ഓക്കെ ഓ ഓ അല്ല നിങ്ങൾ നിങ്ങളുടെ എവിടെയൊക്കെയാണ് സർവീസ് ഉള്ള സ്പോട്ടുകൾ സ് സ്പോട്ടുകൾ നമുക്കൊന്ന് വാട്ട്സാപ്പ് ചെ എനിക്കൊന്നു വാട്ട്സാപ്പ് ചെയ്തിരുന്നാൽ മതി കേട്ടോ പിന്നെ നിങ്ങളുടെ പാക്കുകൾ ഉണ്ടല്ലോ നിങ്ങളുടെ പാക്കുകൾ ഉണ്ടല്ലോ കുറേ പാക്കുകൾ അപ്പം അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ